ഹലോ സുൽത്താൻ പാലസ്സല്ലേ ഞങ്ങൾക്കിവിടെ ഒരു സൽക്കാരമുണ്ടായിനു അഞ്ഞൂറ് പേരുടെ പരിപാടിയാണ് അപ്പോള് ഞങ്ങള്ക്ക് ഭക്ഷണം കഴിച്ചതിനുശേഷം ഒരു മധുരപലഹാരമൊക്കെ കൊടുക്കുമല്ലോ അത് വേണായിനു അയിനെന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ളത് ലഡ്ഡു ജിലേബി മൈസൂർ പാക്ക് ഐസ് ക്രീം കാരറ്റ് ഹലുവ ഇതൊക്കെ ഉണ്ടോ അതിനൊക്കെ കാരറ്റ് ഹലുവക്കൊക്കെ നല്ല റേറ്റാവുമോ കേരറ്റ് അൽവ കേരറ്റ് അൽവേം ഐസ്ക്രീമും പുഡിങ്ങുമാണ് മാണ്ടിയത് ഏതൊക്കെ ഇതാണ് ഐസ്ക്രീമുള്ളത് ചോക്കളേറ്റ് വാനില ഇളനീര് ഇതൊക്കെ ഉണ്ടോ ഇളനീർ പുഡിങ്ങും ചോക്കളേറ്റുമാണ് കേരറ്റ് അലുവയുമാണ് വാണ്ടത് അതിനൊക്കെ എത്രയാവും റേറ്റ്